ഹലോ ഇത് വി ൻ്റെ കസ്റ്റമറാണോ അത്പ്പ ഞാൻ വിളിച്ച എന്തന്ന് വെച്ചാല് എനിക്കിവിടെ ഞാൻ ഇപ്പ നിക്കുന്ന സഥലത്തുന്നത് ഡാറ്റ സ്പീഡ് കിട്ടുന്നില്ല അപ്പോ ഞാൻ നോക്കുമ്പോ ഞാന ഈ പ്ര്രാവശ്യം കേറ്റിയത് കേറ്റിയ പാക്ക്ന്ന് പറഞ്ഞാല് ആാറാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാക്ക്ാണ് അതില് നിങ്ങ ഓഫറെ ചെയ്തത് ഒന്നേ പോയിൻറ് ഫൈവ അഞ്ച് ജിബി ഡാറ്റ ഡെയിലി ഡാറ്റന്ന് അതിന് പുൊറമെ വീക്കെൻഡ ഓൾ ഓവർണ്ട് അതുപോലെ പന്ത്രണ്ട് മണിറ്റു രാത്രി പന്ത്രണ്ടേ മന്ന രാവിലെ പന്ത്രണ്ട മലേ ഫ്രീ നെറ്റുണ് അപ്പോ ഈ ഒരു ബാക്കില് എനിക്കിപ്പോ നെറ്റ്ിവിടെ തീര സ്പീഡില്ലാതാണ് വരണുന്നത് അങ്ങനെ പിന്നെ ചെക്ക് ചെയ്തപ്പോ എൻ്റെ ഡെയിലി ഡാറ്റ ഓവറ ആനോ എല്ലാ നല്ല ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാനോണ്ടാണ് നിങ്ങള് വിളിച്ചത് അപ്പോ അത് എനിക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ എൻ്റെ ഫോൺ നമ്പറ്ന്ന് പറഞ്ഞാൽ ഒമ്പതേ അഞ്ചേ നാലേ ഒന്നേ ഒന്നേ ഒന്നേ ആറേ ആറേ അഞ്ചേ രണ്ട് ഇ ഈ ഫോൺ നമ്പറില് തങ്ങളൊന്ന് ചെക്ക് ചെയ്യണെങ്കില് എനിക്ക് വളരെ ഉപകാരമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ എക്സ്പയർ ഡാറ്റ ബക്ക് എക്സ്പ എക്സ്പയർ ആവാനായിരുന്നു അയിനോല്ലേന്നുള്ള ഒന്ന് അയിൻ്റെ വിവര ഒന്ന് തന്നാല് നന്നോവമായിരുന്നു